ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകഥാപാത്രം തകഴിയാണ് തകഴിയിലെ ചെമ്മീൻ എന്ന സിനിമേ സിനിമ വളരെ എല്ലാവർക്കും കണ്ടിരിക്കത്തക്ക രീതിയിലുള്ളൊരു സിനിമയാണ് കുടുംബസമേതം എല്ലാവർക്കും പിന്നേ കാണാനായിട്ടുള്ളൊരു സിനിമയാണ് അതിനകത്തെ കഥാപാത്രങ്ങളായ കറുത്തമ്മയും അതെല്ലാം എപ്പോഴും പണ്ടുകാലത്തെ സിനിമകള് ഇപ്പോഴും നമ്മുടെ ഓർമയിൽ തെളിഞ്ഞ് നില്ക്കുന്നൊരു സംഗതികളാണ് ഇപ്പോഴത്തെ സിനിമകളെപ്പോലെ അല്ലാ അല്ല അത് കഥ കഥ എഴുതിയാൽ ആ കഥയ്ക്കനുസരിച്ചുള്ള വിവരണമാണ് അതിനകത്തുനിന്നും നമുക്ക് കിട്ടുന്നതും അതുപോലെ ആ സാഹിത്യങ്ങളും പന്നേ പിന്നെ തമാശകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ഇതിൽ രസകരമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് അവര് കഥ എഴുതുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കിഷ്ടപ്പെടുന്ന രീതിയിലത് നമുക്ക് കണ്ടിരിക്കാനും എത്രനേരം വേണേലും കണ്ടിരിക്കാൻ നമുക്കത് സാധിക്കും അതിനകത്തെ കഥാപ്രസ അല്ലെങ്കില് കഥാ പിന്നെ രചിച്ചവരും പിന്നേ അഭിനയിച്ചവരും എല്ലാം ഇന്നും ഇന്ന് അവര് നമ്മളിൽ നിന്നും പോയെങ്കില് അവരിന്നും നമ്മളുടെ നമ്മൾ ജീവിക്കുന്നപോലെ നമ്മള്ക്ക് തോന്നും അതുപോലെ നല്ല അഭിനയ രംഗങ്ങളായിരുന്നു ആ ചെമ്മീനകത്ത് നമ്മള്ക്കു കാണാനായിട്ടു പറ്റിയത് പിന്നെ ഇപ്പോള് പഴയ കാലങ്ങളിലെ സാഹിത്യകാ എഴുതുന്നതായിട്ടുള്ള ആൾക്കാരെ അതുപോലെ നന്നായിട്ട് എഴുതുന്ന ആള്ക്കാരിപ്പോഴും ഈ ഭൂ ഇവിടെ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ എന്നുപോലും നമ്മള്ക്ക് സംശയം വരും അത് അത്രയ്ക്കു നല്ല കായിക ഇതായിട്ടായിരുന്നു പിന്നെ ഈ പണ്ടത്തെ സാഹിത്യകാരൻമാര് അവരെ മനസ്സിൽ തോന്നുന്നതായ കാര്യങ്ങള് എഴുതി കഥകളാക്കി ഇങ്ങനേ നടന്നുകൊ നടത്തിക്കൊണ്ടിരുന്നത് പിന്നേ

കുട്ടികളുടെ കൂടെ ഇരുന്നാണേലും നമ്മള്ക്ക് ഇപ്പോഴത്തെ സിനിമകള് കാണുന്നതുപോലെയല്ല കുട്ടികളുടെ കൂടെയിരുന്നാൽ നമുക്ക് രസകരമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങളവര് അതിനകത്ത് വിശേഷിപ്പിക്കുമായിരുന്നു കൂടുതൽ അതിനെപ്പറ്റി ചില ചില കാര്യങ്ങള് നമ്മള് അറിയാനും അറിഞ്ഞിരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മള് സാഹിത്യത്തിലൂടെ അവർക്ക് അവര് നമ്മള്ക്ക് പരിചയപ്പെടുത്തിത്തരുമായിരുന്നു ഓരോ കഥാപാത്രത്തേയും ജീവിക്കുന്ന കഥാപാത്രങ്ങളാക്കിയവര് മാറ്റിയെടുക്കുമായിരുന്നു ഈ സാഹി പഴേ സാഹിത്യകാരൻമാര് അതുപോലെ നമ്മൾക്കത് വീണ്ടും വീണ്ടും കാണാനായിട്ടുള്ള ഒരു താൽപ്പര്യം നമ്മൾ ജനിപ്പിക്കത്തക്ക രീതിയിലായിരുന്നു അവരുടെ കഥകളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അന്നേ എല്ലാവർക്കും ഇഷ്ട്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണവരത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കുറേ നാളത്തെ പരിശ്രമമായിരിക്കാം നമ്മള് കുറച്ചു നേരം കൊണ്ട് നമ്മള് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊ ഉൾക്കൊണ്ടാൽ നമുക്ക് സാധിക്കുന്നത് അവര് അതു നല്ല രീതിയിൽ അവർക്കത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമ്മളിൽ അത് നമ്മൾ നല്ലരീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് അവരൊത്തിരി അക്ഷീണം പ്രയസ് പ്രയത്നിക്കുന്നുണ്ട് പ്രയത്നിച്ചാണ് നമ്മളെയത് കാണിക്ക് കാണിക്കാനായിട്ട് അവരത് ആ കഥ എഴുതുകയും കാര്യങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നത് അപ്പോള് നമ്മള് ആ കാര്യങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് അതിൽനിന്നും പല പല കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും സാധിക്കു സാധിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ അറിവിൻറ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞുകൊടുക്കാനും പലപ്പോഴും പഴയ കഥാപാത്രങ്ങളെ നമുക്ക് പ്രയോജനകരമാക്കിത്തന്നിട്ടുണ്ട് ഈ സാഹിത്യകാരൻമാർ